ഇപ്പം ഞാൻ ചെടി ആ ഉപ എന്താ പറയുക ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഉപദേശം സ്വീകരിക്കുന്നത് കൂടുതലായിട്ടും എൻ്റെ അമ്മയിൽ നിന്നാണ് അപ്പോൾ അമ്മ നല്ല രീതിയിൽ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരാളാണ് അപ്പം അമ്മ ഇപ്മ്മ് പുറത്തു നിന്ന് എവിടെ നിന്നെങ്കിലും ഇപ്പം ചെടി കണ്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയി അവിടെ നിന്ന് എന്താ പറയുക ഇപ്പോൾ ഓരോ പല തരത്തിലുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലവിടെ നിന്ന് അത് പറിച്ചു കൊണ്ട് വന്ന് നമ്മളുടെ വീട്ടിൽ നടാനും അത് പരിപാലിക്കാനും അമ്മ നന്നായിട്ട് ശ്രമിക്കുമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ആണ് ചെയ്യുന്നത് അപ്പം അമ്മയിൽ നിന്നാണ് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് അപ്പം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം എന്നാൽ അതുകൊണ്ടാണ് ഞാനിവിടെ എൻ്റെടുത്ത് തന്നെ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അപ്പം അത് നാ അമ്മേൻ്റെ ഒരു ഉപദേശം കൊണ്ടാണ് ഞാനിപ്പം ഇപ്പോഴും ഈ ചെടികൾ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകുന്നത് അപ്പം പിന്നെ ഞാൻ വേറെവിടെയെങ്കിലും ഇപ്പോൾ ചെടികൾ കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഞാനത് പറിച്ചു കൊണ്ട് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ കൊണ്ട് നടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മെയ്നായിട്ട് ഞാൻ അമ്മേൻ്റെടുത്ത് നിന്നാണ് ഉപദേശവും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാറ്